ആ ജോസഫ് സാറല്ലേ അതെയതെ ആ സാറെ നമസ്തേ സാറെ നമ്മുടെ സ്കൂളിൻ്റെ ഓണാഘോഷ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് ആലോചിക്കാൻ വേണ്ടീട്ടാണ് വിളിച്ചത് സാറെ എങ്ങനെ എങ്ങനെ അത് ക്രോഡീ ക്രമീകരിക്കണമെന്നുള്ള ഒരു ഐഡിയ സാറിൻ്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും വ്യക്തമായിട്ടൊരു ധാരണയുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് പൊതുവായിട്ട് ആലോചിച്ചിട്ട് അത് അതിൻ്റെ വേണ്ട രീതിയിൽ ചെയ്യാനായിട്ട് നമുക്ക് തയ്യാറെടുക്കാം സാറിൻ്റെ അഭിപ്രായമെന്താണ് അതെങ്ങനെ സാറെ ആ കൂട്ടത്തിൽ ചെറിയ ഈ മത്സരങ്ങളൊക്കെ നടത്തുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു സാറെ അതിൻറ്റകത്തിൽ സാറെ അതുപോലെ തന്നെ നമ്മൾ ഇവർ ഒരു രണ്ട് ദിവസത്തെ പ്രോഗ്രാമായിട്ട് അറേഞ്ച് ചെയ്താൽ അതിൻറ്റേതായ കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് സാറെ അത്

എന്റെ അഭിപ്രായത്തിൽ സാറെ അവർ വരുമ്പോൾ ഒരു ആഘോഷമെന്ന നിലയിൽ നമുക്ക് അവർക്കൊരു ചെറിയൊരു സദ്യയും കൂടെ ഒരുക്കുന്നതിൻ്റെ അഭിപ്രായം എൻ്റെ മനസ്സിൽ ആ സാറെ അപ്പോൾ ഇതിൻ്റെടയ്ക്കിനി ഇവർക്കുള്ള എന്തെങ്കിലും ഈ കായിക മത്സരത്തിലൊക്കെ സമ്മാനവൊക്കെ കൊടുക്കുവാൻ വേണ്ടീട്ട് നമുക്ക് പ്രാദേശികമായിട്ട് ഏതെങ്കിലും വ്യക്തികളെയൊക്കെ ക്ഷണിക്കേണ്ടതായിട്ടുണ്ടോ അങ്ങനെ എന്തേ

ഇപ്പം നമ്മളിതിനെക്കുറിച്ച് വിശദമായിട്ടൊരു ഒരു ചെറിയ മീറ്റിങ്ങ് കൂടി അതിനാത്തിൽ ചില വ്യക്തികളെയൊക്കെ തെരഞ്ഞെടുക്കേണ്ട ആവശ്യമുണ്ടോ അതോ നമ്മൾ പൊതുവായിട്ടങ്ങ് നടത്തിയാൽ മതിയോ അപ്പം നമുക്കീ കുട്ടികൾക്കെന്തെങ്കിലും പ്രോത്സാഹനം കൊടുക്കേണ്ട എന്തെങ്കിലും ഒരു സമ്മാനം അതൊക്കെ നമ്മൾ മേടിക്കേണ്ടതായിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാം ആ ശരി സാറെ ശരി അങ്ങനായിക്കോട്ടെ എന്നാൽ നേരിട്ട് നമ്മൾ കാണുമ്പം വിശദമായ ചർച്ചയിലേക്ക് അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാമല്ലേ ശരി ശരി സാറെ താങ്ക് യൂ